നമ്മുടെ ഗ്രാമത്തിലെ വ്യത്യസ്ത ജെലസ്രോതസ്സുകളേതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാണ് മഴവെള്ള സംഭരണി കിണർ കുളം തോട് ബോർവെൽ നീർച്ചാൽ തോട് ഇതൊക്കെയാണ് പ്രധാനമായി വരുന്ന ജെലസ്രോതസ്സുകൾ ഇതിപ്പോൾ വേനൽക്കാലത്ത് മഴക്കാലത്ത് ഇതിലൊക്കെ വെള്ളം സുലഭമാണെങ്കിലും വേനൽക്കാലം അടുക്കും തോറും ഓരോ ഓ ജലസ്രോതസ്സും വറ്റി വരളുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അതായത് പല സ്ഥലങ്ങളിലും കുളങ്ങളായാലും തൊടുകളായാലും മഴ മാറി ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ മഴ മാറി അത് വറ്റി വരണ്ട് വെള്ളം കിട്ടാ ആവാത്ത ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അതായത് ഒരു വരൾച്ചയെ ഒരു ഗ്രാമം മുഴുവനും നേരിടുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരോ കുടുംബവും വെള്ളത്തിന് വേണ്ടി സ്വന്തം കിണറിൽ അല്ലെങ്കിൽ സ്വന്തം സ്വയം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് മ ജെലസ്രോതസ്സിൽ വെള്ളം ഇല്ലാതെ വരുമ്പോൾ അടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ ദൂരങ്ങൾ താണ്ടി മറ്റ് ജലസ്രോതസ്സിനെ അന്വേഷിച്ച് പോകുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ പലസ്ഥലങ്ങളിലും ഉണ്ടാവുന്നത് ഇപ്പോൾ വേനൽക്കാലം വരുമ്പോൾ അവർ വെള്ളത്തിനുള്ള ക്ഷാമം നേരിടുന്നുണ്ട് ആ ക്ഷാമം നേരിടുന്ന സമയത്ത് ഇവര് കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ആയി ഇവർ മറ്റുള്ള മറ്റ് കുടുംബത്തേയൊ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ ആശ്രയിക്കും ഗവൺമെൻറ്റ് വേനൽക്കാലത്ത് ഒ ഒരു തുള്ളി വെള്ളം ദാഹജലം അങ്ങനെയുള്ള പലതരം സംരംഭങ്ങളിലൂടെ അവർ പഞ്ചായത്ത് തലത്തിൽ ഇവർ ജലം വെള്ളം ലഭ്യമാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു ഒരു നിശ്ചിത അളവിലുള്ള വെള്ളം അവർ ലഭ്യമാക്കുന്നുണ്ട് പഞ്ചായത്തിലും അപേക്ഷ സമർപ്പിച്ചാൽ ആ വെള്ളം പിന്നീട് നമുക്ക് കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് നമ്മൾ തേടി ആ ജലസ്രോതസ്സുകൾ എത്ത് എത്തും എത്തുകയാണ് ചെയ്യുന്നത് അതേപോലെതന്നെ ഇപ്പോൾ കുളങ്ങളായാലും തോടുകളായാലും വേനൽക്കാലം വരുമ്പോൾ അത് വറ്റി വരളുന്ന കാഴ്ചയാണ് കാണപ്പെടുന്നത് അതായത് ഒരു വർഷം ഒരു വർഷം മുഴുവനും ആ ജലസ്രോതസ്സുകളെ നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് മഴക്കാലത്ത് നിറഞ്ഞ് തുളുമ്പിയിരുന്ന ജലസ്രോതസ്സുകളെ വേനൽക്കാലം ആകുന്നതോടെ വറ്റി വരണ്ട് കാണപ്പെടുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് പണം മുടക്കി പൈസ ചിലവിട്ട് വെള്ളം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട് ഇതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഇപ്പം മഴ ശരിയായ അളവിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ആ മഴ പെയ്യുന്ന വെള്ളം മുത മുഴുവനും നമ്മൾ നെ നല്ല രീതീയിൽ സംരക്ഷിക്കാത്തതിന് ക സംരക്ഷിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നത് അതായത് നല്ല രീതീയിലിത് ഭൂമീലേക്കിറ്റ് വീഴുന്ന വെള്ളത്തെ നല്ല രീതീയിൽ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതായത് അതിപ്പോൾ മഴവെള്ള സംഭരണി മഴ മഴക്കുഴി അങ്ങനെയൊക്കെ ഇത് ഈ കുത്തി ഒലിച്ച് പോകുന്ന വെള്ളത്തെ തടഞ്ഞ് നിർത്തി അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയാണ് നമ്മൾ വേണ്ടത് അങ്ങനെ ചെയ്തെങ്കിലേ ഈ മഴ വേ മഴക്കാലം മാറി വേനൽക്കാലം വരുമ്പോൾ വെള്ളത്തിന് വേണ്ടി നമ്മൾ പല നാട്ടിലേക്കും പല സ്രോതസ്സുകൾ അന്വേഷിച്ച് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഈ കുത്തി ഒലിച്ച് പോകുന്ന വെള്ളത്തെ ശരിയായ രീതീയിൽ സംരക്ഷിച്ചാൽ മാത്രമേ ഇത് ആ വരൾച്ചയെ അല്ലെങ്കിൽ ജല ക്ഷാമത്തെ നമുക്ക് മറികടക്കാൻ പറ്റുകയുള്ളൂ അതിനുള്ള ഒരു പ്രധാന പോംവഴി ആണ് ഒന്ന് മഴക്കുഴിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ ടെറസ്സിൽ വീഴുന്ന വെള്ളത്തെ പൈപ്പ് മുഖേന അത് നമ്മുടെ ജലസ്രോതസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അങ്ങനെയുണ്ട് അതായത് ഇപ്പം നമ്മുടെ കുഴൽക്കിണറിലേക്ക് ഒരു പൈപ്പ് മാർഗ്ഗം പൈപ്പ് മുഖേന ആ വെള്ളം ഫിൽറ്റർ അത് നമ്മുടെ കുഴൽക്കിണറിൻ്റെ ഉള്ളിലേക്ക് ഇറ്റ് വീഴുന്ന രീതീയിൽ സ്ഥാപിക്കണം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കുഴൽക്കിണറിൽ പിന്നീട് വേനൽക്കാലത്തുണ്ടാകുന്ന ജല ക്ഷാമത്തെ നമുക്ക് മറികടക്കാവുന്നതാണ് അതായത് കുത്തി ഒലിച്ച് പോകുന്ന വെള്ളത്തെ നമ്മുടെ കുഴൽക്കിണറിലേക്കാണ് അത് എത്തിക്കുന്നത് അതേപോലെ തന്നെ തോടുകളും കുളങ്ങളൊക്കെ മലിനമാക്കുന്ന സാഹചര്യങ്ങളും വാരാറുണ്ട് അതായത് കെട്ടിക്കിടക്കുന്ന ചപ്പ് ചവറുകളും അല്ലെങ്കിൽ വലിച്ചെറിയുന്ന ചപ്പു ചവറുകളൊക്കെ ഈ കുളങ്ങളിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത് അപ്പം അങ്ങനെ നല്ലൊരു നല്ലൊരു സ്രോതസ്സിനെ അത് മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതീയിലിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു ജെല സ്രോതത് സ്സേ സംരക്ഷിക്കാൻ പറ്റുന്നതാണ് അതേപോലെ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക അതായത് അനാവശ്യ രീതീയിൽ വെള്ളം വലിച്ചെറിയുകയും വലിച്ച് കളയുകയും ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാതെ പ ടാപ്പ് തുറന്നിട്ട് വേറെയൊരു സ്ഥലത്ത് പോവുക അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതായത് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക അതേപോലെ നമ്മുടെ ജലസ്രോതസ്സുകൾ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുഴൽക്കിണറായാൽ കിണറായാൽ അതിനെ വല മൂടി സംരക്ഷിക്കുക അതായത് അതിലേക്ക് മറ്റേ അണുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചപ്പ് ചറവ് ചപ്പ് ചവറുകളോ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ഷൻ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള രീതീയിൽ ഒരു സുരക്ഷാകവലം തീർക്കുക അതായത് ഒരു വല ഉപയോഗിച്ച് അതിൻ്റെ മുക മുകൾ ഭാഗം കവർ ചെയ്യുക അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക ഇങ്ങനെയുള്ള പരിഹാരം പോംവഴികൾ നടത്തിയാൽ തന്നെ നമുക്ക് ഒരു വർഷം മുഴുവനും നമ്മുടെ നാട്ടിൽ ജലം ലഭ്യമാക്കാവുന്നതാണ് ഇത് നമ വേ വേനൽ വേനൽക്കാലം മഴക്കാലം മാറി വേനൽക്കാലം വരുമ്പോഴുള്ള ഈ മലിനമ മഴക്കാലം മാറി വേനൽക്കാലം വരുമ്പോഴുള്ള വരൾച്ചയെ നമുക്ക് നല്ല രീതീയിൽ ഇങ്ങനെയുള്ള സം രംഭങ്ങളിലൂടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ജലം അമൂല്യമാണ് എന്നുള്ളത് ഓരോ കുട്ടികളേയും പഠിപ്പിക്കുക ആ ജല സ്രോതസ്സുകൾ നിറഞ്ഞ് കവിയാൻ വേണ്ടി മഴക്കാലമായാലും വേനൽക്കാലമായാലും ജലത്തെ എങ്ങനെയാണ് പറ്റുന്ന രീതീയിൽ അതായത് ഓരോ ഒ പൗരനും ജലത്തെ സംരക്ഷിക്കും എന്നുള്ള പ്രതിജ്ഞ ചെയ് പോലെ അവർ അത് പ്രാവർത്തികമാക്കുക അതേപോലെ കൂടുതലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നാൽ തന്നെ ആ കുത്തി ഒലിച്ച് പോകുന്ന വെള്ളത്തെ നമുക്ക് തടയാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ജല സ്രോതസ്സുകൾ ശരിയായ രീതീയിൽ സംരക്ഷിച്ചാലേ നമ്മുടെ ആ ജലസ്രോതസ്സുകളെ നമുക്ക് സംരക്ഷിക്കാവുന്നതും വർഷം മുഴുവനും ജലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാവുന്നതുമാണ്